ഗ്രാമ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും മനോഹരമായിരിക്കും കാരണം അവിടെ ഉണ്ടാകുന്ന പ്രകൃതി രമണീയത എന്ന് പറയുന്നത് ആളുകളെ ആസ്വദിപ്പിക്കുന്നതായിരിക്കും കാരണം ടൗൺ ഏരിയ എന്ന് പറയുമ്പോൾ പലപല വികസനങ്ങൾ നട നടന്ന് നടന്ന് അവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഇല്ലാതായിട്ടുണ്ടാവും പക്ഷേ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വികസനങ്ങൾ കുറവായതിന്റെ കൂടെത്തന്നെ പ്രകൃതിരമണീയത എപ്പോഴും കാത്തുസൂക്ഷിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പുറത്തേക്ക് പോയിക്കാണുന്ന പല കാഴ്ചകളും അതിമനോഹരമായി നമുക്ക് കാണാൻ കഴിയുക നമ്മളെ ഗ്രാമങ്ങളിൽ തന്നെയായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മുടെ ശ്രദ്ധപോലും അവിടേക്ക് എത്തിപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടേക്കുള്ള വഴികൾ തന്നെയാണ് പലപ്പോഴും നമുക്കവടെ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റാറില്ല ഇപ്പോൾ നമ്മുടെ പല ഏരിയകളും നമ്മുടെ ഗ്രാമത്തിലെ പല ഏരിയകളും വിനോദസഞ്ചാരികൾക്കും അതേപോലെത്തന്നെ പുറം നാട്ടിലുള്ളവരെയും ഒരുപാട് അതിശയിപ്പിക്കുന്നതായിരിക്കും പക്ഷേ പലരും അതിന്നും കണ്ടിട്ടുണ്ടാവില്ല കാരണം അങ്ങോട്ട് എങ്ങിനെ എത്തിച്ചേരും എന്നുള്ളതാണ് മുന്നിലുള്ള ഏറ്റവും വലിയൊരു കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിനോദസഞ്ചാരങ്ങളെയും നമ്മുടെ ആളുകളുടെ ശ്രദ്ധയും അങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് നല്ലൊരു വഴിണ്ടാക്കുക അതിലൂടെ ട്രാൻസ്പോർട്ടേഷൻ കൂട്ടുക അതിലൂടെ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വിനോദസഞ്ചാരങ്ങളെ കൂട്ടുക എന്നുള്ളതാണ്